ഇപ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണവും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഇവിടെയുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ആക്സിഡന്റായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ഉദാഹരണത്തിന് ബാംഗ്ലൂരൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അവിടുന്ന് വണ്ടി ഒന്ന് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ ആരേയും ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ട് പോകാനൊന്നും ഒരു മനസ്സാക്ഷിയും കാര്യങ്ങളൊന്നും കാണിക്കില്ല കാരണമെന്ന് വച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ളവരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ അവരുടെ ഒരു കാര്യവുമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കാരണം എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ ഒരാളിപ്പോൾ അവിടെ വണ്ടി ആക്സിഡന്റായിട്ട് കിടന്നാൽ പോലും വന്ന് നോക്കുകയോ ഒന്നുമില്ല ഇപ്പോൾ നമ്മൾ മലയാളികളൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ടും മലയാളികളൊക്കെ ആണെങ്കിൽ അങ്ങനെ എന്താണ് പറയുക നമ്മളെ തല്ലാനൊക്കെ നോക്കും ചിലപ്പോൾ നമ്മളെ നമ്മുടെ ഭാഗത്തല്ല തെറ്റ് എന്നുണ്ടെങ്കിലും നമ്മളെ അവർ വന്നിട്ട് തല്ലുകയോ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ നമ്മളെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ട് പോകാൻ പോലും ആരും ഉണ്ടാകില്ല നമ്മളിപ്പോൾ അഥവാ ആശുപത്രിയിലൊക്കെ എത്തിപ്പെട്ടാലും അവർ നമ്മളെ ചിലപ്പോൾ നോക്കുവാനൊന്നും കൂട്ടാക്കില്ല നമ്മൾക്കിപ്പോൾ വലിയ ഭാഷയോ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ നമ്മളുടെ അടുത്തുനിന്ന് എങ്ങനെ പൈസ പിഴിയാമെന്നൊക്കെയാണ് അവർ നോക്കുക നല്ല രീതിയിൽ നമ്മുടെ കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ സംസ്ഥാനം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് പൈസയും കാര്യങ്ങളുമൊക്കെ കുറവായിട്ട് ഉള്ളതാണ്